ആ ഹലോ ഇത് ഇൻഫാ ടൂറിസ്റ്റ് കെ ഏജൻസി അല്ലേ ആ ഞാനിത് കോഴിക്കോട് നിന്നായിരുന്നു വിളിക്കുന്നത് എനിക്ക് ഒരു ടൂറ് പോവാൻ പ്ലാനുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഏജൻസീനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഞാൻ ഓൾ കേരള ആണ് നോക്കുന്നത് ആ ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ ടൂറാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് അഞ്ച് പേര് ആ മതി മതി നിങ്ങള് തന്നെ വരാൻ പറ്റുവാണെങ്കിൽ അത് ഞങ്ങൾക്കത്രയും സ്യൂട്ടബിളായിരുന്നു

ഫുള്ളായിട്ട് അക്കൊമഡേഷനും ഫുഡും എല്ലാം നോക്കുന്ന രീതിയിലായിരുന്നു വേണ്ടത് ആ അതെ അതെ ഓക്കേ ഫുഡ്ഡ് ആൻഡ് അക്കൊമഡേഷനും എല്ലാം കൂടി ചേർന്നിട്ടാണോ ഈ രണ്ടായിരത്തിയഞ്ഞൂറ് പെർ പേഴ്സണ് വരുന്നത് ഓക്കേ

ആ ലാസ്റ്റ് ഡേ ഞങ്ങള് ഇപ്പോൾ ഫ്രണ്ട്സെല്ലാം കൂടിയൊരു പ്ലാനിട്ടേക്കുന്നത് ലാസ്റ്റ് ഡേ എല്ലാവർക്കും കൂടെയൊരു എന്താ പറയുക ഒരു ഡി ജെ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ക്യാമ്പ് ഫയറും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ആക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതൊക്കെ നിങ്ങള് അറേഞ്ച് ചെയ്ത് തരുന്നതാണോ ഓക്കേ

ഓക്കേ ഓക്കേ ഓക്കേ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എത്ര പ്ലേസുകള് കവറ് ചെയ്യാൻ പറ്റും ഓക്കേ ഓക്കേ ഇതിപ്പം പതിനഞ്ച് ദിവസത്തേക്ക് എത്രയാണ് റേറ്റ് വരുവാന്നും കൂടെ പറയാമോ ഓക്കേ പൈസ പ്രശ്നമില്ല ഞങ്ങള് എല്ലാവരും ഓക്കേയാണ് അതിനോട് നിങ്ങൾ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ഏ ഒരു ടൂറ് ചെയ്ത് തന്നാൽ മതി ആ അതെ അതെ ഇല്ലില്ല ആ ഓക്കേ ഓക്കേ ഓക്കേ ഞങ്ങളെന്നാൽ നാളെ ഓക്കേ നാളെ തന്നെ വരാം ഓക്കേ താങ്ക് യൂ